ഹലോ വേണൂസ് മൊബൈൽ ഷോപ്പ് അല്ലേ ആ ഒരു കുഴപ്പമുണ്ട് എൻ്റെ ഫോണേ രണ്ട് ദിവസമായിട്ട് ബാറ്ററി പോയി കിടക്കുവാണ് അപ്പോൾ അപ്പം അതെന്താണ് ചെയ്യേണ്ടത് എനിക്കൊരു പിടിത്തമില്ല ഈ മറ്റേ ബാറ്ററിയുടെ മോഡൽ എനിക്ക് അറിയില്ല ഞാൻ വേണമെങ്കിൽ മറ്റേ റെസീപ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറയാം പക്ഷേ മറ്റേ ഫോൺ റിയൽമി എയ്റ്റ് ആണ് ഇത് മേടിച്ചിട്ടൊരു ഒന്നൊന്നര കൊല്ലം ആയിട്ടുണ്ടാവും

അതെ റിയൽമി എയ്റ്റ് ആണ്

ഇല്ല എനിക്ക് നോക്കിയിടത്തോളം അതിനൊന്നും കുഴപ്പമായിട്ട് തോന്നിയില്ല ആകെ ഒരു ബാറ്റ്റിക്ക് കുഴപ്പമായിട്ട് ഇതുവെരെ തോന്നിയുള്ളൂ ഇന്നിപ്പം എനിക്കറിയില്ല ഞാൻ അതാണ് ലൈക് അവിടെ വന്നിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു വിശദമായിട്ടേ നിങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് ആ അതുശരി ഇത് വരെ ഇല്ല ഇനി അറിയില്ല ഇനിയിപ്പോൾ അവിടെ പോയി ചെന്നാൽ ആ എനിക്കേ ഇപ്പോൾ ഇപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞത് ഇപ്പം മറ്റേ ഇതിന് ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റ് എനിക്ക് കാണലില്ല ഇനിയിപ്പം അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് കാണുമോ എന്ന് അറിയില്ലേ അത് നിങ്ങൾ എന്ന് അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഷോപ്പിലേക്കേ

ഓക്കെ അപ്പം ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു നല്ല ഇനിയിതിൻ്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് കാശൊക്കെ എത്രയാണ് വരുന്നത്

ഓക്കെ ഓക്കെ എനിക്ക് ഹൈ ക്വാളിറ്റി തന്നെയാണ് വേണ്ടത് കാര്യം ഇനി എനിക്കിനി ഇങ്ങനെ ഒരു പ്രശ്നം വരരുത് ബാറ്ററിക്കേ

ആണല്ലേ ഇതിപ്പോൾ എന്താണ് വെച്ചാൽ രണ്ട് മാസം മുന്നേ വന്നേ മാറ്റിയേ ഉള്ളൂന്നേ ഇപ്പം എന്നിട്ട് വീണ്ടും വന്നു

അതുശരി അതുശരി അതുശരി അപ്പം അങ്ങനെ അല്ല ഇനി ഇപ്പം ആ ഇതും ഞാനിപ്പം ഈ ബാറ്ററി പുതിയ ബാറ്ററിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്താൽ നിങ്ങൾ എത്ര ദിവസത്തിനുള്ളിലാണ് കൊണ്ടുവരിക ഞാനേ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും ഇതൊന്ന് എൻ്റെ ഭർത്താവായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങളെ വിളിച്ച് പറയാം എന്നിട്ട് ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഓക്കെ ശരി ശരിയെന്നാൽ